ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ചിത്രം വരയ്ക്കുവോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ കൂടുതലായിട്ടും നമ്മള് ഫ്രെയിം ചെയ്താണ് സൂക്ഷിക്കാറ് കാരണമെന്ന് വെച്ചഴിഞ്ഞാല് ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കുമ്പോൾ നമുക്ക് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇങ്ങനിട്ട് അതിന് വേറെ കാര്യ എന്താ പറയുക ഇപ്പം ഫംഗസോ കാര്യങ്ങളൊന്നും വരാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നയാണ് അപ്പോൾ കൂടുതലായിട്ടും ഞാന് ഫ്രെയിം ചെയ്താണ് സൂക്ഷിക്കുന്നത് പിന്നെ ലാമിനേഷൻ ചെയ്ത് സൂക്ഷിക്കുന്നവരുമുണ്ട് അപ്പോൾ അതാണെങ്കിലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമുണ്ടാവില്ല നമ്മള് നല്ല രീതിയില് ഉപയോ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും ഇപ്പോൾ അല്ലാണ്ട് സൂക്ഷിക്കുന്നവരുമുണ്ട് ജസ്റ്റ് പേപ്പറ് വരച്ച് കഴിഞ്ഞിട്ട് നമ്മള് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരച്ച് കഴിഞ്ഞ് അതിനകത്ത് വേറെന്താ പറയുക ഇപ്പം നല്ല രീതിയില് ഒരു സ്ഥലത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാല് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ലാണ്ട് സൂക്ഷിക്കുന്നവരുമുണ്ട് പക്ഷെ നമുക്ക് കൂടുതലായിട്ടും എളുപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അതൊരു ഫ്രെയിം ചെയ്തിട്ട് നമ്മളുടെ ഭിത്തിയിലും കാര്യങ്ങളൊക്കെ തൂക്കുവാണെങ്കില് കുറച്ചും കൂടെ ബെറ്ററായിരിക്കും കാരണം നമ്മള് പുറമെ നിന്ന് വരുന്ന ആൾക്കാരെ ഇമ്പ്രെസ്സെയ്യിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും നമ്മള് റൂമിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണുമ്പഴൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മള് കൂടുതലായിട്ടും അങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കാറ്